ഹലോ മാം ഗ്രില്ലിംഗ് റെസ്റ്റോറൻറ്റല്ലേ ഞാൻ ഒരു രണ്ട് മണിക്കൂറ് മുമ്പ് ഒരു ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു എനിക്ക് സ്വിഗ്ഗി വഴി അത് ഇപ്പോഴെത്തിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡല്ല കാരണം ബിരിയാണീന്നൊരു വൃത്തികെട്ട മണം ഒക്ക വരുന്നുണ്ട് പിന്നെ ചിക്കൻ ഒട്ടും ഫ്രഷല്ല ഞാൻ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ റേയ്റ്റിംഗ് കണ്ടിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളുടെ റെസ്റ്റോറൻറ്റുന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നത് പക്ഷേ എനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെല്ലാ എല്ലാവർക്കും ഫുഡ്ന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഞങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ റേയ്റ്റിങ്ങുള്ള റെസ്റ്റോറൻറ്റുകൾ നോക്കി ഫുഡ് ഓർഡർ ചെയ്യുന്നതാണ് ഞങ്ങളെല്ലാവരും പൈസ കൊടുത്തന്നെ ഓർഡർ ചെയ്യുന്നത് നല്ല ഫുഡ് പ്രതീക്ഷിച്ചാണ് ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്യുന്നത് പക്ഷേ ഇതൊരു വളരെ മോശം ഒരു കാര്യവായി പോയി ഞാനിതൊട്ടും എക്സ്പെക്ററ് ചെയ്തില്ല ഒരു അര മണിക്കൂറായിക്കാണും ഫുഡിൻ്റെ ഡെലിവറിയും താമസിച്ചായിരുന്നു ഓ ഒന്നുങ്കിൽ നിങ്ങളെനിക്ക് റീഫണ്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഫുഡ് മാറ്റിത്തരണം എല്ലാ എനിക്കിപ്പം ഫുഡുണ്ടാക്കാനുള്ളൊരു സ്ഥിതീലല്ല അതുകൊണ്ടാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളെന്താന്ന് വെച്ചാൽ റീയ് എൻ്റെ ഫണ്ട് റീഫണ്ട് ചെയ്യോ അല്ലെങ്കിൽ ഫുഡ് റീപ്ലേസ് ചെയ്യോ ചെയ്യണം